മലയാള ഭാഷ ഒരു ദ്രാവിഡ ഭാഷയാണ് അതിന്റെ ഉത്ഭവം നടന്നിട്ട് നൂറ്റാണ്ടുകൾ ആയിട്ടുണ്ട് സാധാരണഗതിയില് എല്ലാവരുടെയും തെറ്റിദ്ധാരണ മലയാളഭാഷ സംസാരിക്കാനും പഠിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടേറിയ ഒര് കാര്യമായിട്ടാണ് പക്ഷേ എന്നാൽ അതിന്റെ വാസ്തവം അങ്ങനെയല്ല കാരണം മലയാളഭാഷ നമ്മളൊന്നു മനസ്സ് വയ്ക്കുകയാണെങ്കിൽ ആർക്കും തന്നെ സംസാരിക്കാൻ കഴിയുന്നതും പഠിക്കാൻ കഴിയുന്നതുമാണ് സംസാരിക്കാനൊരു ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെങ്കിലും പതിയെ അത് സോൾവാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെതന്നെ മലയാള ഭാഷയിലെ വ്യഞ്ജനാക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ എന്ന രീതിയിലാണ് അക്ഷരങ്ങളുടെ ഭാഗമുള്ളത് അതുപോലെതന്നെ അതിന് ഒരുപാട് സവിശേഷതകളുണ്ട് മലയാള ഭാഷയ്ക്ക് പര്യായം അതുപോലെതന്നെ ഒരു വാക്കിനുള്ള ഓപ്പോസിറ്റ് വാക്കുകള് അതുപോലെതന്നെ ശൈലികള് അതുപോലെ ഒരുപാട് സന്ധികള് എല്ലാം ചേർന്ന ഒരു വലിയ ഒരു ഒരു ഭാഷയുടെ ഒരു പുസ്തകം തന്നെയാണ് മലയാളം എന്ന് പറയുന്നത് അതുപോലെതന്നെ മലയാള ഭാഷ കേരളീയരുടെ സംസ്കാരത്തെതന്നെ ഒരുപാട് ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരു അടക്കവും ചിട്ടയും എല്ലാം ഒരു മനുഷ്യനിൽ ഒരു മലയാളിയിൽ കൊണ്ടുവന്നത് മലയാള ഭാഷ തന്നെയാണെന്ന് തീർത്തും പറയാവുന്ന ഒരു കാര്യമാണ് കാരണം അതിൽ നിന്നു തന്നെ മലയാള ഭാഷയിൽ നിന്നുതന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താവുന്ന ഒരുപാട് നല്ല ഗുണപാഠങ്ങൾ ഉണ്ട് അത് നമ്മളുടെ മാതാപിതാക്കളെ സ്നേഹിക്കാനും കുടുംബ ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാനും സൗഹൃദങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും ഒരു പ്രശ്നങ്ങൾ എങ്ങനെയെല്ലാം മറികടക്കാം എന്നുള്ളതും എല്ലാം മലയാള ഭാഷയിലൂടെ ഒരു വ്യക്തിക്ക് പഠിക്കാവുന്നതാണ് ഇത്രയും പഠനത്തിലൂടെ ഒരു വ്യക്തി നല്ലൊരു വ്യക്തിത്വമാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ടുതന്നെ മലയാള ഭാഷ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മലയാളിയെ തീർത്തും നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്നെയും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഘടകം തന്നെയാണ് മലയാള ഭാഷ മലയാള ഭാഷ എനിക്കെന്റെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും അതുപോലെതന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ട ഒര് കാര്യവും എൻ്റെ കുടുംബ ജീവിതം നിലനിർത്താനും എല്ലാത്തിനുമായി മലയാള ഭാഷ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ എന്നെ ഇങ്ങനെ ഒരു നല്ലൊരു വ്യക്തിത്വം എന്റെ വ്യക്തിയിൽ ഉണ്ടാക്കിയെടുത്തതും മലയാള ഭാഷ തന്നെയാണെന്ന് പറയാം